ഈ ഓണത്തിന് ഫ്രിഡ്ജിനും ടി വിക്കൊക്കെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു അപ്പം എങ്ങനെയാണ് ഓഫറ് നമുക്ക് ഈ പഴയതൊക്കെ ഈ പിന്നെ ആ കറണ്ട് അടുപ്പൊക്കെ ഉണ്ട് ആ അതൊക്കെ മാറ്റി എടുക്കാൻ പറ്റോ ടി വി അങ്ങനെയൊക്കെ ഉള്ളത് മാറ്റി എടുക്കാൻ പറ്റോ ആ ഓക്കെ മിക്സി ഒക്കെയോ ഈ വർക്ക് ചെയ്യുന്ന ആണെങ്കിൽ കുഴപ്പം ഉണ്ടോ ഓക്കെ അപ്പം നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടി വരുമോ

ഓണത്തിന് ഓഫർ എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തില്ല

എത്ര എത്ര രൂപ വീതം വച്ച് ഡിസ്കൗണ്ട് വരുന്നുണ്ട് പഴയതിനേക്കാളും വച്ച് നോക്കുമ്പം കുറവുണ്ട്

അതിനേക്കാളും കുറയും അല്ലേ

എനിക്കൊരു വാഷിംഗ് മെഷീൻ ഒന്ന് പുതിയത് എടുക്കണംന്ന് ഉണ്ട് പിന്നെ ആ ഇൻഡക്ഷൻ കുക്കർ ഒന്ന് മാറ്റാനുണ്ട്

ഇനി ഓട്ടോമാറ്റിക്കിൻ്റെ മതി അതിന് എത്രയാന്ന് ഏകദേശം എമൗണ്ട് വരുന്നത്

ഇതിൽ ബട്ടർഫ്ളൈ ആണ് ഞാൻ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്ന ബട്ടർഫ്ളൈയാണ് അതായിരിക്കും ബെറ്ററെന്ന് തോന്നുന്നു

ആ ആ ആയിക്കോട്ടെ

ഓക്കെ എന്റടുത്ത് ഉള്ളത് ഓൾമോസ്റ്റ് നല്ലതാണ് വർക്ക് ചെയ്യുന്നെയാണ് അപ്പം നമുക്കത് മാറ്റിയാലും അത്രേ ഇതിണ്ടാവോ ഓക്കേ എന്നാൽ ഒരു കാര്യം ചെയ്യാ ഞാൻ എന്നാൽ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം അപ്പം അങ്ങനെ ആകുമ്പം പിന്നെ കുഴപ്പം ഇല്ലല്ലോ

ഓക്കെ അപ്പം ഞാൻ എന്നാൽ വരാട്ടോ അങ്ങ് നേരിട്ട് വരാം അതായിരിക്കും നല്ലത് ഓക്കെ താങ്ക് യൂ